ഹലോ ഇത് ഞാന് തുരുത്തിയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലുള്ള തുരുത്തിയിൽ നിന്നാണ് വിളിക്കുന്നത് ഇത് ആമസോണിൻ്റെ ഓൺലൈൻ സ്റ്റോറല്ലേ എനിക്കൊരു വൺ പ്ലസിൻ്റെ ഹെഡ് ഫോൺ വേണമായിരുന്നു നിങ്ങളുടെ സ്റ്റോറിൽ അത് ആ അവൈലബിൾ ആണോയെന്നൊന്ന് അറിയാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു അതിൻ്റെ ഏതൊക്കെ മോഡലുകളെ കുറിച്ചൊരു ചെറിയ വിവരണം നല്കുകയാണെങ്കില് എനിക്ക് വളരെ ഉപകാരമായിരുന്നു ഏതാണ് നല്ലതെന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു ആ പിന്നെ കൂടുതല് വ്യക്തതയുള്ള ഒരു വ്യക്തത ലഭിക്കുന്ന ഒരു ഹെഡ് ഫോണാണ് എനിക്ക് വേണ്ടത് അപ്പോള് താങ്കളുടെ സ്റ്റോറിലുള്ള മോഡലുകൾ ഏതൊക്കെയാണെന്നൊന്നു പരിചയപ്പെടുത്തുകുയാണെങ്കിൽ എനിക്ക് വളരെ നന്നായിരിക്കും അതിൻ്റെ വിലകളും ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതാണ് സാധാരണ ഈ മോഡലുകള് ഞങ്ങളുടെ അയൽവക്കത്തുള്ള അടുത്ത ടൗണിലുള്ള കടകളിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാന് ഓൺലൈനായിട്ടാണ് വാങ്ങിക്കുന്നത് പക്ഷെ ഓൺലൈൻ ചിലപ്പോള് നമുക്ക് തിരിച്ച് അത്ര ചിലപ്പോള് നല്ല സാധനങ്ങളായിരിക്കും ലഭിക്കുന്നത് അപ്പോള് കംപ്ലൈന്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കില് തിരിച്ചു നല്കാനായായിട്ട് നമുക്ക് സാധിക്കുമല്ലൊ അല്ലെങ്കില് തിരിച്ചയയ്ക്കാൻ സാധിക്കുമല്ലോ അപ്പോള് ഇതിന് ഡെലിവറി ആകാനെത്ര ഉണ്ടെങ്കില് ഡെലിവറി എത്ര ദിവസം കൊണ്ടാണ് ഡെലിവറി ആകുന്നത് അതിൻ്റെ ചാര്ജസൊക്കെ ഒന്ന് പറയുകയാണെങ്കില് നല്ലതായിരുന്നു ഇതിന് വാറൻ്റി ഉണ്ടോ എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു എത്ര നാളത്തേക്കാണ് വാറൻ്റി ലഭിക്കുന്നത് ഉണ്ടെങ്കിൽ എത്ര നാളത്തേക്കാണ് വാറൻ്റി ലഭിക്കുന്നെന്നും കൂടെയൊന്ന് പറയുകയാണെങ്കില് നല്ലതാണ് എത്രെയും പെട്ടെന്ന് ഇതൊക്കെയൊന്ന് അറിയാൻ സാധിക്കുമല്ലോ അല്ലേ ഡെലിവറി ഒരാഴ്ചയ്ക്കകം നടക്കുമായിരിക്കും അല്ലേ അപ്പോള് ആ മോഡലുകളുടെ ഒരു വിവരണം ഒന്ന് നൽകുകയാണെങ്കില് നല്ലതായിരുന്നു ഏതൊക്കെ മോഡലുകൾ ഉണ്ടെന്നൊന്ന് പറഞ്ഞു തരുമായിരുന്നുവെങ്കില് അതിൻ്റെ മിക്ക ഫീച്ചേഴ്സും ഒക്കെയൊന്ന് പറയുവാണെങ്കില് വളരെ നല്ലതായിരുന്നു